ഹലോ ഞാന് എൻ്റെ മോൾടെ ഇതിന് കല്യാണത്തിനു വേണ്ടീട്ട് വിളിച്ചതാരുന്നേ അപ്പം അതിന് ഈ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുവോന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ആ ആ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അതെ അതെ അതെ നമക്കിപ്പോൾ എത്രയാ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ആ മുപ്പതാ ആ ആ ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഇപ്പം വീഡിയോയും കൂടെ എടുക്കുവാണെങ്കിലോ മ് ചെയ്തു കൊടുക്കുന്നുണ്ടല്ലേ അത്രയൊന്നും വേണ്ട നമുക്ക് നമുക്കൊരു സാധാ മോഡല് അതായത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു നോർമൽ വീഡിയോയും കാരണം നമുക്കിത് ആ

ഓക്കെ ഓക്കെ അപ്പം നമുക്കൊരു നോർമൽ ആയിട്ടുള്ളത് മതി ഓവർ റേറ്റിൻ്റെ ഒന്നും വേണ്ട അപ്പം ആ ഇപ്പോൾ അതായത് പ്രീവെഡിങ്ങിനും വീഡിയോ ഒന്നും വേണമെന്നില്ല നമുക്ക് പ്രീവെഡിങ്ങിനൊക്കെ നമുക്ക് ഫോട്ടോ മാത്രം മതി നമുക്ക് വെഡിങ്ങിന് മാത്രം വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കില് ആ അതെയതെ അപ്പം അപ്പം റേറ്റ് കുറച്ച് കുറയുമല്ലോ മ് ആ ചെയ്തുതരും അല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ അപ്പോൾ എപ്പോഴാന്നു വെച്ചു കഴിഞ്ഞാല് അടുത്തമാസം ഒരു പതിനാറാം തീയതിയൊക്കെ ആണ് കല്യാണം വരുന്നത് അപ്പം അതിനു മുന്നേ നമുക്ക് പ്രീവെഡിങ് എപ്പഴാണ് വെക്കുക നിങ്ങൾ എപ്പഴാണ് ചെയ്തുതരും അല്ലേ ഹാ ആ ഓക്കെ അങ്ങനെയാണെങ്കില് പ്രീവെഡിങ്ങിന് ഡേറ്റ് ഞാൻ മോളുടെയടുത്ത് ചോദിച്ചിട്ട് ഞാൻ വിളിക്കാം പ്രീവെഡിങ്ങിനുള്ള ഡേറ്റ് കേട്ടോ ആ അപ്പം ഇല്ല ഒന്നും നോക്കിയിട്ടില്ല അപ്പം നിങ്ങടടുത്തു നിങ്ങൾക്കറിവുള്ള ഏതെങ്കിലും ഒരു സ്ഥലമുണ്ടെങ്കില് ഇപ്പോൾ കോഴിക്കോട് നല്ലൊരു സ്ഥലം ഉണ്ടെങ്കില് ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കില് ഞാൻ മോളോട് ചോദിച്ചിട്ട് ഒന്ന് കൺഫോമ് ആക്കിയിട്ട് വിളിക്കാം എന്തായാലും പതിനാറാം തിയതി കല്യാണമാണ് അപ്പം പതിനാറാം തിയതി എന്തായാലും നിങ്ങള് വരണം അപ്പം അതിനു മുന്നേ പ്രീവെഡിങ് ഒന്ന് റെഡിയാക്കിയേക്ക് അപ്പം അഡ്വാൻസ് എന്തെങ്കിലും നിങ്ങൾക്ക് വേണോ ആ ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ ആ ഓക്കെ ഓക്കെ എന്നാൽ ഞാൻ മോളോടൊന്നു ചോദിച്ചിട്ട് ഞാന് ആ വിളിക്കാം നാളെ ഞാൻ വരാം എന്നാല് മോളോടൊന്നു മോളേയും കൂട്ടിയിട്ട് വരാം എന്നാല് ഓക്കെ ഓക്കെ എന്നാല്